പാലക്കാട് ജില്ലയിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനം മികച്ചതാണ് ഇത് നല്ല രീതിയിലുള്ള മെഡിക്കൽ സേവനങ്ങളും നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും നമുക്ക് പാലക്കാട് ജില്ലയിൽ അവൈലബിൾ ആണ് മെഡിക്കൽ കോളേജുകൾ നമുക്ക് പാലക്കാടില് ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ചെറിയ അസുഖങ്ങൾ തൊട്ടിട്ട് വലിയ വൈറസായിട്ടു അസുഖങ്ങൾ വരെ അതിനു വേണ്ടിട്ടു ചികിത്സിക്കാനുള്ള ചികിത്സാ സൗകര്യങ്ങൾ നമുക്കു പാലക്കാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് അതുപോലെതന്നെ നമുക്കിപ്പം നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമുക്ക് തൊട്ട് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മള് തൊട്ടടുത്ത ജില്ലയിൽ പോകുക അങ്ങനേയുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പം നമ്മടെ ജില്ലയിൽ തന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ലഭിച്ച ഭയങ്കര സൗകര്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെത്തന്നെ അവരത്രേയും കെയറോടെയാണ് അവിടുള്ള ആരോഗ്യ സംവിധാനം നമ്മളെ നോക്കുന്നത് പക്ഷേ ചില ഹോസ്പിറ്റലുകളില് അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവടെയുള്ള സ്റ്റാഫ്സ് സ്റ്റാഫിൻ്റെ മികവ് കഴിവുകേടുകൾ കൊണ്ട് നമുക്കത് മോശമായിട്ട് ബാധിക്കാറുണ്ട് ചില ആശുപത്രികളിൽ നിന്നാണ് അമ്മയും കുഞ്ഞും മരിച്ചു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മടെ പാലക്കാട് ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം എത്രയൊക്കെ സൗകര്യങ്ങൾ ഇണ്ടെങ്കിലും അവടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഡിപെന്റ് ചെയ്തിട്ടിരിക്കും നമ്മുടെ നമ്മുടാരോഗ്യം നിലനിൽക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്നത് നമ്മളിപ്പം ഒരു അസുഖം വന്നിട്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവുന്ന സമയത്ത് അവിടെ എത്ര ഹൈലി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവരെ അവിടെ നോക്കുന്ന ഡോക്ടർക്കൊന്ന് പിഴച്ച് കഴിഞ്ഞാൽ അവടെ എത്ര വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് കാര്യമുണ്ടാവില്ല അപ്പോൾ നമ്മൾ ശെരിക്കും നമുക്ക് സേവനങ്ങളും കമ്യൂണി നല്ലാ നല്ല സൗകര്യങ്ങളും നമ്മളിപ്പം പ്രൈമറി ഹെൽത്ത് സെന്റേർസ് പോലുള്ള സെൻ്ററുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കേന്തേലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് വേണ്ടി അവർ വന്നിട്ട് മരുന്ന് തരാനൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറും ഷുഗർ പേഷ്യന്റ്സൊക്കൊ ഉള്ളവരാണെന്നിണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഗ്ലൂക്കോ മീറ്ററൊക്കെ തന്നിട്ട് പോവാറുണ്ട് ആ വീക്കിലി ആണെങ്കിലും അവര് വന്നിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അവൈലബിൾ ആണ് വലിയ വലിയ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് തുച്ഛമായിട്ടുള്ള കാശില് നമുക്ക് പല ടെസ്റ്റുകൾ ചെയ്യാറും പല മരുന്നുകൾക്ക് ആണെങ്കിലും അങ്ങനുള്ള സംവിധാങ്ങളും സൗകര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് അവര് ചെയ്ത് തരുന്ന ഒരുപാട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഉണ്ട് സഹകരണ ആശുപത്രികൾ ഉണ്ട് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഒരുപാട് ജനങ്ങൾ അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സർവീസ് കിട്ടുള്ളൂന്നുണ്ടെങ്കിലും നല്ല മികച്ച സർവീസ് തന്നെ ആയിരിക്കും നമുക്ക് ആർക്ക് വേണെങ്കിലും ഏത് സമയത്തും അറ്റ് മിനിമം കോസ്റ്റില് നമ്മുടെ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ നോക്കി കൊണ്ട് പോവാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ജില്ലാ ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ആണെങ്കിലും അതുപോലെ തന്നയാണ്